ആ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണേ നിങ്ങൾ ഫാമിൽ ഏതൊക്കെത്തരം പച്ചക്കറികളാണ് കൊടുക്കുന്നത്

ആ ഇപ്പോഴത്തെ ഈ ടൈപ്പ് ഉള്ളതൊക്കെ ഉണ്ടാവുമോ പുതിയ ടൈപ്പ് ഉള്ള വെജിറ്റബിള്സ് ഒക്കെ ഉണ്ടാവുമോ ആണല്ലേ ആ ആ ആ ആ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെയൊക്കെ ആ എനിക്ക് കുറച്ച് ഒരു ഷോപ്പിലേക്കും കുറച്ച് വേറെ പരിപാടിയൊക്കെ ഉണ്ട്

ആ ആ ആ ആ എല്ലാം വേണ്ടി വരും ബള്ക്ക് ആയിട്ട് തന്നെ എടുക്കാനാണ് ആ ഓക്കെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എങ്ങനെ എന്തെങ്കിലും കാര്ഡ് എന്തെങ്കിലും ഉണ്ടോ വാട്ട്സപ്പ് നമ്പർ ആണോ ഇത്

ആ ആ ഞാനെന്തായാലും എനിക്ക് ഈ ആഴ്ച തന്നെ വേണം എന്തായാലും സാധനം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആ എന്റെ സ്ഥലം കോഴിക്കോട് ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ